ഞാൻ ഒരു പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഇത്ര ടൈം എടുത്ത് ഞാൻ പുസ്തകം വായിക്കും അങ്ങനെ ഒന്നും ഞാൻ കരുതാറില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് തന്നെ ആ പുസ്തകം വായിച്ച് ഞാൻ തീർക്കും എനിക്ക് ഞാൻ കരുതിയ പുസ്തകം അല്ല കിട്ടിക്കണേ എന്ന് ഒരു വെറുതെ ഒരു പുസ്തകം എടുത്ത് പോന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഒക്കെയാവും ചിലപ്പോൾ ഞാൻ വായിച്ചു തീർക്കുന്നത് അത് ഞാൻ ഇനി എനിക്ക് ഇന്ന പുസ്തകം എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു പോയി അവിടെ ആ പുസ്തകം എനിക്ക് കിട്ടിയാൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരിക്കും വീട്ടിലെത്തിയ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ആ പുസ്തകം വായിച്ച് എനിക്കും ഫുഡും വേണ്ട ഉറങ്ങുകയും വേണ്ട ഞാൻ അങ്ങനെയിരുന്ന് ഞാൻ ആ പുസ്തകം എത്രയും പെട്ടെന്ന് ഞാൻ വായിച്ചു തീർക്കും ഓരോ പുസ്തകം ഞാൻ എല്ലാ പുസ്തകം ഒന്നും എനിക്ക് അങ്ങനെ അത്ര പ്രിയപ്പെട്ടതല്ല ചില ചിലരുടെ ചില പുസ്തകങ്ങൾ മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട പുസ്തകങ്ങൾ അപ്പോൾ ഞാൻ ആ പുസ്തകം എടുക്കണമെന്നുള്ള ഇൻറ്റൻഷ്വലിയാണ് അവിടെ ചെല്ലുന്നത് പക്ഷേ അവിടെ ആ പുസ്തകം ഇല്ലെങ്കിൽ ഞാൻ ഏതായാലും വെറുതെ പോയതല്ലേ കരുതി ഞാൻ ഏതെങ്കിലും പുസ്തകം എടുത്ത് വരും അങ്ങനെയാണ് അല്ലാതെ ഇത്ര ദിവസം കൊണ്ട് നമ്മൾ വായിച്ചു തീർക്കണം അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയെടുത്ത് എങ്ങാണ്ട് ഒരു പുസ്തകം വായിച്ചു തീർത്താൽ മതി അങ്ങനത്തെ ഒന്നുമില്ല ഞാൻ എത്ര പെട്ടന്നാണോ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത്രയും പെട്ടന്ന് ഞാൻ വായിച്ചു തീർക്കും അങ്ങനെയാണ് പിന്നെ ഏത് പുസ്തകം ആണെങ്കിലും നമുക്ക് ഒരു ഇഷ്ടമുണ്ടാവുമ ല്ലോ ഒരു പുസ്തകത്തിനോട് അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ വരികൾ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ അങ്ങനെ ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും നമുക്ക് അപ്പോൾ ആ ഇഷ്ടത്തിന് അനുസരിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതാണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ നമ്മൾ വായിച്ച് എത്രയും പെട്ടെന്ന് തീർക്കും അങ്ങനെയാണ് പിന്നെ ഞാൻ ഓരോ പുസ്തകം നമുക്ക് ആ ഇഷ്ടപെട്ട പുസ്തകങ്ങൾ ചിലപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം കൊടുന്ന വച്ചാൽ നമ്മൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ നമ്മൾ രണ്ട് പുസ്തകം ഒക്കെ വായിച്ചു തീർത്ത അനുഭവങ്ങളുണ്ട് നമുക്ക് ഇഷ്ടപെട്ട പുസ്തകങ്ങളാണ് രണ്ടും ഒരു പോലെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വായിച്ചു തീർത്തു അടുത്തത് എത്രയും പെട്ടെന്ന് വായിക്കണം എന്നുള്ള ഒരു മൈൻ്റോട് കൂടിയായിരിക്കും നമ്മൾ അപ്പം പെട്ടെന്ന് തീർക്കും അതിൻ്റെ ക്ലൈമാക്സ് എന്താണ് എങ്ങനെയാണ് എന്ന് അറിയാനുള്ള ഒരു ഒടുക്കനെ നമ്മൾ എത്രയും പെട്ടെന്ന് അത് എത്രയും വായിച്ചു തീർത്തിട്ടുണ്ട്